കാലക്രമേണ കേരളീയ സംസ്കാരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഏത് മേഖലയിലായിക്കോട്ടെ സാങ്കേതിത മേഖലയിലായിക്കോട്ടെ സാംസ്കാരിക മേഖലയിലായിക്കോട്ടെ ഉത്സവങ്ങളുടെ മേഖലയിലായിക്കോട്ടെ എല്ലാ മേഖലയിലും ചില വ്യത്യാസങ്ങൾ ഇപ്പോൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പല മേഖലയിലുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളും പണ്ടത്തെ പോലത്തെ ഒരു ട്രഡീഷണൽ രീതിയിലല്ല ഇപ്പം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യത്യാസം അതിൻറ്റർത്ഥം അതേപോലെയല്ല നടക്കുന്നത് എന്നല്ല എന്നാലും അത്ര പെർഫക്റ്റ് ആയിട്ടല്ല പണ്ടത്തെ ആ ഒരു രീതി അച്ചടി ഭാഷയിൽ അതൊക്കെ അനുകരിച്ചാണ് ഇപ്പം നടക്കുന്നത് എന്നൊരു അർത്ഥം ഇല്ല എന്നാണ് പറഞ്ഞത് പണ്ടെന്ന് പറയുമ്പോൾ ഇപ്പം ഏത് മേഖലയിൽ ഇപ്പം ഉത്സവങ്ങൾ ഉദാഹരണമായി എടുക്കുക വെച്ചാൽ പണ്ട് നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന ഉത്സവങ്ങളൊക്കെ നടന്നിരുന്നത് അത് ഓരോ ഓരോ ചിട്ടകളുണ്ടായിരുന്നു ഓരോത്തിനും ഓരോ ഇന്ന ദിവസം നടക്കുക ഇന്ന തീയതിയിൽ ഇന്ന ആൾക്കാർ വരുക ഇന്ന വസ്ത്രം ധരിക്കുക ഇന്ന പൂജകൾ ചെയ്യുക അങ്ങനെയൊക്കെ പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നാലിന്ന് അതേപോലെ തന്നെ അതേ രീതിയിലാണ് നമ്മളെല്ലാം അനുകരിച്ച് വരുന്നത് എന്നുണ്ടെങ്കിലും ചില ചില പാകപ്പിഴകൾ എല്ലാത്തിനും സംഭവിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ പണ്ടത്തെ പോലെ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും പണ്ട് ചിലർ ഇങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു ഇത്ര ദിവസം വ്രതം എടുത്തിട്ട് ഈ പൂജ ചെയ്യുക ഉത്സവങ്ങൾക്ക് അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും എന്നാൽ ഇന്ന് അങ്ങനെ ഇല്ല ഇന്ന് ആൾക്കാർ വ്രതം എടുക്കുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ചില ചില ദിക്കുകളിൽ പണ്ടത്തെ പോലത്തെ ആ ഒരു പെർഫക്റ്റ് ആയിട്ടുള്ളൊരു രീതിയിലല്ല അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു രീതിയിലല്ല ഇപ്പോഴും ഉത്സവങ്ങളായാലും എന്തായാലും നമ്മൾ കണ്ടുവരുന്നത് സംഗീതങ്ങളായാലും പണ്ടത്തേതിനേക്കാൾ ചില ചില മാറ്റങ്ങൾ പുതിയതിന് വന്നിട്ടുണ്ട്